ഇത് ഓരോരുത്തരും അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അവർ ഏത് രീതിയിലുള്ള ശേഖരമാണോ ആ അതനുസരിച്ച് അവർ അവർ ഇഷ്ടമുള്ള സാധനങ്ങൾ തെരഞ്ഞെടുക്കും ഇപ്പം നമ്മൾ ഏത് രീതിയിലുള്ള സാധനം ആണ് സൂക്ഷിക്കുക ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിരിച്ച് ശേഖരിക്കും സ്റ്റാമ്പാണ് എങ്കിലും നാണയം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് തെരഞ്ഞെടുക്കുന്നത് അത് ഓരോരുത്തരും അവർ അവരുടെതായ ഒരു തീരുമാനം അനുസരിച്ച് നമുക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് അവൻ അവൻ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾ മാത്രം മാനദണ്ഡങ്ങൾ ങ്ങൾ മാത്രമേ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളോ പ്രമേയങ്ങളോ ഉള്ളതായിട്ട് അറിവില്ല നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ശേഖരത്തിലുള്ളത് എന്താണോ അതനുസരിച്ച് നമ്മൾ ഓരോന്നും നമ്മൾ തെരഞ്ഞെടുക്കുന്നു ഒരാൾ ഇപ്പം സ്റ്റാമ്പ് സൂക്ഷിക്കുവാണെങ്കിൽ അവ അവർ അവരുടെ ശേഖരത്തിന് അനുസരിച്ച് എന്ത് സ്റ്റാമ്പാണോ സൂക്ഷിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള സ്റ്റാമ്പുകൾത്തന്നെ അവർ വീണ്ടും ശേഖരിക്കുന്നു നാണയണങ്ങൾ ആണെങ്കിൽ പോലും ഓരോ രാജ്യത്തിൻ്റെ കോയിനുകളാണ് അവർ ശേഖരിക്കുന്നത് അത് തന്നെ അവർ വീണ്ടും അത് ആ രാജ്യത്തിൻ്റെ തന്നെ സീകരിക്കുന്നു പക്ഷേ ചിലർ ഏത് പുറത്തുള്ള ഏത് രാജ്യത്തിൻ്റെ നാണയങ്ങൾ ആണെങ്കിലും അവർ ശേഖരിച്ച് വെക്കാറുണ്ട് ഓരോരുത്തരും അവർ അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇത് തീരുമാനിക്കുന്നത് അല്ലാതെ പ്രത്യേക നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല ഓരോരുത്തരും സ്വന്തമായ തീരുമാനങ്ങൾ അനുസരിച്ച് ഇത് ചെയ്യുന്നു അല്ലാതെ പ്രത്യേക രീതികൾ ഒന്നും ഇതിന് ഉണ്ടാകണം എന്നില്ല നമ്മുടെ ശേഖരത്തിലേക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമ്മളെ ആരും ഇത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതോ ഒന്നും ആയിരിക്കരുത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എന്താണോ ശേഖരിക്കേണ്ടത് എന്താന്ന് നമ്മൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുക ഇതിന് പ്രത്യേക ഇഷ്ടങ്ങളോ നിയമങ്ങളോ ഒന്നും പാടില്ല അവനവൻ അവൻ്റെ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ഇത് ചെയ്യുന്നു എന്നേ ഉള്ളു അല്ലാതെ ഇതിന് പ്രത്യേക നിയമവസ് വ്യവസ്ഥകളോ ഒന്നും ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു എന്ത് ശേഖരിക്കണം എന്ന് തീരുമാനിക്കുന്നു അതനുസരിച്ച് അവർ ശേഖരിക്കുന്നു അല്ലാതെ അതിന് പ്രത്യേക രീതിയിൽ വേണം എന്നോ പ്രത്യേക ഇതിൽ വേണം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഓരോരുത്തരും അവനവൻ്റെ രീതിക്ക് അനുസരിച്ചും അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചും ആണ് ഇത് ശേഖരിക്കുന്നത് നമ്മുടെ നിയമങ്ങളോ നിയമ വ്യവസ്ഥിതികളോ ഇതിനെ കുറിച്ച് പ്രത്യേക പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് അറിവില്ല നമ്മൾ എന്ത് ചെയ്യണമെന്ന് എന്ത് ആണ് ഇതിൽ പുലർത്തേണ്ടത് എന്നും ആരും നമുക്ക് പറഞ്ഞ് തന്നിട്ടുമില്ല അത് ഓരോരുത്തരും അത് അവരുടെ ഒരു ഹോബി ആയിക്കണ്ട് അവർ അത് പിൻതുടരുന്നു എന്നേ ഉള്ളു അല്ലാതെ ഇതൊന്നും ഒരു നിയമത്തിലുള്ളതോ നിയമ വ്യവസ്ഥയിൽ പറയുന്നതോ ആയ കാര്യങ്ങൾ അല്ല